കന്നു കുട്ടികൾ ജനിച്ച് അര മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് കന്നിപ്പാൽ നൽകണം അത് അവയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ധാരാളം ആന്റിബോഡികളൊക്കെ ലഭിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ജനിച്ച് വീഴുമ്പോൾ തന്നെ ശ്വാസോഛ്വാസം ശ്രദ്ധിക്കണം അണുബാധയുണ്ടാകാതെ നോക്കണം അതിനായിട്ട് പശുക്കുട്ടിയെ തള്ളയുടെ അടുത്തുനിന്ന് മാറ്റി വൃത്തിയുള്ള ഉണങ്ങിയ സ്ഥലത്ത് വൈക്കോൽ കൊണ്ട് മെത്ത പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവിടെ കിടത്തുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ കന്നുകുട്ടികളുടെ വിരയിളക്കണം അതുപോലെ ആറ് മാസം ആറ് മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വിര മരുന്ന് നൽകാം ആദ്യ മാസം രണ്ട് ലിറ്റർ പാൽ കുടിപ്പിക്കുക അടുത്ത രണ്ട് മാസം ഒന്നര ലിറ്റർ പാൽ കുടിപ്പിക്കുക മൂന്നാം മാസം ഒരു ലിറ്റർ ആവുക നാലാം മാസം അര ലിറ്റർ കൊടുക്കുക ക്രമേണ ക്രമേണ പശുകുട്ടിയുടെ മുലകുടി അവസാനിപ്പിക്കണം പിന്നെ വളരുന്ന പ്രായത്തിൽ കൂടുതൽ പ്രോട്ടീൻ ലഭിക്കാൻ കടലപ്പിണ്ണാക്ക് പച്ചപ്പുല്ല് കാലിത്തീറ്റ ഇതൊക്കെ നൽകാം അതുപോലെ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് യഥാസമയം കൊടുക്കാം